കേരളത്തിലെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് സർക്കാർ സംബന്ധമായി പറയുകയാണെങ്കിൽ സർക്കാർ നല്ല ഒരു ഇതാണ് സർക്കാരിന് വേണ്ട എല്ലാ സഹായങ്ങളും മുമ്പ് മുമ്പിലത്തെ സർക്കാരിനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ ഇതും ചെയ്തുകൊടുക്കുകയായിരുന്നു ഇപ്പോൾ നമുക്ക് അതിന് ഉള്ള ഇത് നമുക്ക് കിട്ടുന്നില്ല രണ്ടാം സർക്കാർ വന്നതിന് വളരെ മോശമായുള്ള പ്രവണതകളാണ് വരുന്നത് ആ വരുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഇത് വരുന്നില്ല ഗവൺമെൻ്റിന് സംബന്ധമായി പൗരന്മാരെ തുല്യപൗരന്മാരായിട്ട് കാണുന്നില്ല പാർട്ടി അനുഭാവികൾക്കും പാർട്ടി എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഏത് പാർട്ടി ആയാലും അവരുടെ അനുകൂലമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവർ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുള്ളു അത് വേണ്ടത് എല്ലാം അവിടുന്നും ഇവിടുന്നും അറിഞ്ഞ് നമുക്ക് അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്ത് തരണം അത് ഗവൺമെൻ്റ് ആണ് ചെയ്ത് തരേണ്ടത് ഗവൺമെൻ്റ് നമ്മളെ കാണുന്നില്ല നമ്മുടെ ഈ ഓരോ ഇതിൻ്റെയും പിന്നെ ഗവൺമെൻ്റ് നമുക്ക് ചെയ്ത് തരേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്ത് തരാതെ നമ്മളെ ദ്രോഹിക്കുകയും അതിനുവേണ്ട മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ഇതെല്ലാമാണ് ചെയ്യുന്നത് ഇത് ചെയ്തിട്ട് നമ്മളെ വെറും ഇത് വോട്ട് ചെയ്ത് നമ്മളെ വെറും മോശക്കാരാക്കുകയും ആം ഇതിൽനിന്ന് നമുക്ക് ഒരു ഇത് കിട്ടാതെ വരികയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സർക്കാരുകളോട് പോലും അവഗണനയാണ് നമുക്ക് തോന്നുന്നത് സർക്കാർ എന്തിനാണ് ജനങ്ങളെ നന്നാക്കാനും ജനങ്ങൾക്ക് ജനങ്ങളെ പരിപാലിക്കാനും വേണ്ടിയാണ് ഈ പരിപാലനത്തിന് നമ്മളെ ഒന്നും നമ്മുടെ വാക്കുകളോ നമുക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തികളോ ഈ സർക്കാരുകൾ കേൾക്കുന്നുമില്ല അതിനുവേണ്ട ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യുന്നുമില്ല